ഹലോ വെൽക്കം വയനാട് ലോക്കൽ ഗൈഡ് അമൽരാജ് ആയിരുന്നു പറയുന്നത് ആ

ഇപ്പോൾ മഴ അങ്ങനെയില്ല ചെറിയൊരു മൂടലായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം നല്ലൊരു അനുയോജ്യമായ കാലാവസ്ഥയാണ് മഴ അങ്ങനെ ഇതുവരെ ഇവിടെ പെയ്യാൻ തുടങ്ങിയിട്ടില്ല അതായത് മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് അങ്ങനെ കയറ്റി വിടില്ല പിന്നെ മറ്റെ കുറുവദ്വീപ് അവിടെ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ കയറ്റി വിടില്ല കാരണം വെള്ളം വല്ലാണ്ട് കുത്തിയൊലിച്ച് വരുന്നതുകൊണ്ട് ഇപ്പം ആണെങ്കിൽ മഴയില്ല മഴ അങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇപ്പോൾ വരാൻ എളുപ്പം ആയിരിക്കും പാക്കേജ് റേറ്റ് എത്ര പേരുണ്ട് പതിനഞ്ച് പേരാണോ രണ്ട് വണ്ടി വണ്ടി വേണ്ടേ

ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ വണ്ടിക്കനുസരിച്ചാണ് പേ വരിക അത് നോക്കിയിട്ട് ചെക്ക് ചെയ്യണം അത് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ വേണോ പ്രൊവൈഡ് ചെയ്യണോ ഫിക്സഡ് റേറ്റാണോ ആ അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു അമ്പത് അമ്പതിൻ്റടുത്ത് വരുമായിരിക്കും ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കാറ് പിന്നെ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം നമുക്ക് എത്ര ഇങ്ങനെ ഇവിടെ നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ലേശം കുറയ്ക്കാനുള്ള ചാൻസുണ്ട് ഞാൻ ഇതിൻ്റെ ലോക്കൽ ഗൈഡ് മാത്രമാണ് അപ്പോൾ മാനേജറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാം നമുക്ക് ആ ആ വേറെയെന്താ ഇപ്പോൾ പടിഞ്ഞാറത്തറ ഡാമുണ്ട് ആ പടിഞ്ഞാറത്തറ ഡാമിൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനും എല്ലാം സൗകര്യങ്ങളുണ്ട് പിന്നെ പൂക്കോട് ലേക്ക് ഉണ്ട് അവിടെയും പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളുണ്ട് അതായത് ആവരുടെ കളിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും അവിടെയുണ്ട് നമുക്ക് ബോട്ടിങ്ങ് യാത്രയുണ്ട് അവിടെ ഇവിടെയൊക്കെ മഴയായി കഴിഞ്ഞാൾ ലേശം ബുദ്ധിമുട്ടായിരിക്കും പോകണമെങ്കിൽ കാരണം വെള്ളം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അവരങ്ങനെ കയറ്റി വിടില്ല അതുകാരണം ഇപ്പോൾ ഇപ്പം വരികയാണെങ്കിൽ അനുയോജ്യമായൊരു സമയമാണ് അധികം ചൂടും ഇല്ല വലിയ തണുപ്പും ഇല്ലാത്തൊരു മീഡിയം ക്ലൈമറ്റാണ് ഉള്ളത് ഇപ്പം ആ ഓക്കെ എന്നാണ് വരുന്നത് മാഡം ആ ഓക്കെ ഓക്കെ നാളെ വരികയാണെങ്കിൽ ഒന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചാൽമതി ആ ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ താങ്ക് യു